ഞാൻ വിളിച്ച കാര്യം ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഫുഡ് ആണല്ലോ ഞാൻ മറ്റേ പൊറോട്ടയാണ് എപ്പഴും ഓർഡർ ചെയ്യാറ് അപ്പോൾ ഞാനത് റദ്ദാക്കാൻ വേണ്ടി വിളിച്ചാണ് കാരണന്താന്ന് വെച്ചാല് നിങ്ങളുടേല് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ എൻ്റേലാണെങ്കിൽ ക്യാഷ് കയ്യിലാണുള്ളത് പെയ്മെന്റ് ഓപ്ഷൻ ഓൺലൈൻ പെയ്മെന്റ് ഒന്നും എൻ്റേലില്ല ഫോണില്ല അപ്പോൾ എനിക്കിപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി അല്ലാതെ വേറെ വഴിയില്ല അത് നിങ്ങള് ഇല്ല പറയാണെങ്കിൽ എനിക്കിപ്പോൾ ഇതൊക്കെ റദ്ദാക്കണം എനിക്കിപ്പോൾ വേണ്ടാന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണ് നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഒന്ന് അനുവദിക്കാൻ പറ്റുവാണെങ്കിൽ നന്നായിട്ടുണ്ടാവും